ഉത്സവങ്ങളിൽ ഉണ്ടാക്കാറുള്ള വിഭവങ്ങളെന്ന് പറയുമ്പം സദ്യ രാവിലത്തേത് കാപ്പി എന്തേലും പ്രത്യേക വല്ല അട മധുര അട വട്ടയപ്പം അങ്ങനെ ഉള്ള വിഭവങ്ങൾ ഉച്ചയ്ക്ക് ചെറിയ രീതിയിലുള്ളൊരു സദ്യ വൈകിട്ട് എന്ന പുഴുക്ക് പോലെ എന്തേലുമുള്ള തിരുവാതിര അങ്ങനെ എല്ലാം അങ്ങനെ എന്തേലും പരിപാടി ഉണ്ടെങ്കിൽ തിരുവാതിര പുഴുക്കോ അങ്ങനെ ഉള്ള പ്രേത്യക രീതിയിലുള്ള വിഭവങ്ങളെ വയ്ക്കാറുള്ളു പിന്നെ എന്ന് പറയാൻ പായസം വയ്ക്കുന്ന ദിവസമാണെങ്കിൽ പായസം മാത്രം വയ്ക്കും പിന്നെ എന്താണ് പിന്നെ

മധുരസേവ അങ്ങനെ ഒക്കെയുള്ള പലഹാരങ്ങൾ ഉണ്ടാക്കാറുണ്ട് ഇതൊക്കെയാണ് സാധാരണ ഞങ്ങൾ ഉത്സവങ്ങളിൽ വയ്ക്കാറുള്ളത് പിന്നെ പാനീയങ്ങൾ ആ രീതിയിലുള്ള പാനീയങ്ങൾ തണുത്ത പാനീയങ്ങളുണ്ടാക്കി കൊടുക്കാറുണ്ട് സംഭാരം ഇളനീര് നാരങ്ങാ വെള്ളം അങ്ങനെ ഉള്ള വിഭവങ്ങളൊക്കെ